ഹലോ ഹലോ ആ

ആ പറയാം എന്തായിരുന്നു ആ അ അമലു അ എന്നാരുന്നു ആ ആ കുഴപ്പമില്ല അമലു നല്ലപോലെ കളിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ചൊക്കെയൊന്ന് ഉഴപ്പിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാതവല് പറയുന്നൊക്കെ കാര്യങ്ങള് മനസിലാക്കുന്നു എടുക്കുന്നുമൊക്കെ ഉണ്ട് കളിക്കുകയും എടുക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് അ ഉം കുഴപ്പമില്ലവള് വർത്തമാനം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവള് നല്ലപോലെ പഠിക്കുന്നുണ്ട് കുഴപ്പമില്ല ശ്രദ്ധിക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതനുസരിച്ച് പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും എടുക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ആ അതെ സിങ്കിളും ഗ്രൂപ്പും എല്ലാതരത്തിലുള്ള ഡാൻസുകളും പഠിക്കുന്നുണ്ട് ആ പഴയ എന്താണ് എന്ത് തരത്തില് സിനിമാറ്റിക്കായിട്ടോ അങ്ങനെ സിംഗിളായിട്ട് തന്നെയാണോ ഉദ്ദേശിക്കുന്നെ ആ കുഴപ്പമില്ല പാട്ടൊക്കെ ഞാന് തന്നെ സെലക്റ്റെയ്യാം എന്നിട്ട് നമ്മള് അതിന് പ്രത്യേകം ഒന്നു രണ്ടു ദിവസത്തെ ക്ലാസ്സൊരു രണ്ട് മണിക്കൂര് വീതം അഡീഷണല് കൊണ്ടുവന്നാല് മതി അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റതിനുവേണ്ടി പഠിപ്പിച്ചുതരാം അപ്പോള് അതിന് അ അതിനിടയ്ക്ക് അതിന് ആ അതെ ആ ഇപ്പോള് നമ്മള് ക്ലാസിക്കലൊക്കെയാണു പഠിപ്പിക്കുന്നത് അപ്പോള് നമുക്കിപ്പോള് സിമ്പിളീ ഈ ആനുവൽ ഫങ്ഷനു വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കില് സിങ്ക്ളൂടെ പഠിപ്പിച്ചുതരാം അതിന് അഡീഷ്ണലായിട്ട് കുറച്ച് റേറ്റുകൂടെ ആകുമെന്നുള്ളതേയുള്ളു എങ്കിലും അത് പഠിപ്പിക്കാം നമ്മള് ഇടയ്ക്ക് ഒന്ന് രണ്ട് ക്ലാസ്സിന് ഒരു രണ്ടു മണിക്കൂർ കൂടുതൽ നേരം കൊണ്ടുവരണമെന്നേയുള്ളു ആ എല്ലാ ദിവസങ്ങളിലും അവൈലബിളാണ് പോരാതെയാണ് ഈ സിങ്കിളൂടെ പഠിക്കണമെന്നുണ്ടേൽ രണ്ട് മണിക്കൂർ ഇപ്പോള് എല്ലാവരുടെയും ഇടയില് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോള് അത് കാരണം ഇടയ്ക്ക് ഒരു രണ്ടു മണിക്കൂറില് കൂടുതല് ക്ലാസ്സ് കഴിഞ്ഞിട്ട് കുട്ടി മാത്രം നില്ക്കുകയാണെങ്കില് അവളെ മാത്രം ഇപ്പോള് അവള്ക്ക് മാത്രം പഠിച്ചാല് മതിയല്ലോ അതു കാരണം ഒരു രണ്ടു മണിക്കൂര് കൂടുതല് പറഞ്ഞത് ഇല്ല ഇല്ല കുഴപ്പമില്ല ഉഴപ്പൊന്നും അങ്ങനൊന്നുമല്ല പിള്ളാരുമായിട്ടൊക്കെ മിങ്കിള് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നല്ലതായിട്ട് പോകുന്നുണ്ട് ആ അപ്പോള് ഇനിയിപ്പൊരൂ അടുത്ത ആഴ്ച ഒരു രണ്ടു ദിവസം ക്ലാസ്സ് കാണത്തില്ല നമ്മള് സ്ഥലത്തില്ലാത്ത സ്ഥലത്തില്ലാത്ത കാരണം ക്ലാസ്സ് കാണത്തില്ല വേറൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോള് ആ രണ്ടു ദിവസം ക്ലാസ്സ് കാണത്തില്ല അപ്പോള് അത് കഴിഞ്ഞ് ക്ലാസെന്നാണ് ഉള്ളതെന്നുവച്ചാല് നമ്മള് ഗ്രൂപ്പില് മെസ്സേജ് ചെയ്യാം അന്നേരം അതനുസരിച്ച് വന്നാല് മതി ഇല്ലെങ്കിൽ വിളിച്ച് എല്ലാവരോടും പറയുന്നതായിരിക്കും ആ ഓക്കെ ശരി ആ ആ ശരി എന്നാല് ആ ആ ശരി ശരി എന്നാല്